കോഴിക്കോട് ജില്ലയിലെ ചില ശ്രദ്ധമേ ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളോ ചരിത്രപരമായ സ്ഥലങ്ങളുമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നമുക്കങ്ങനെ ഒരു പാട് സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്കിപ്പം ഉദാഹരണത്തിന് ആണെങ്കിൽ ക്ഷേത്രങ്ങളുണ്ട് കൊട്ടകളുണ്ട് മ്യൂസിയങ്ങളുണ്ട് പ്രകൃതി അതായത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് അതായാത് ആൾക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിൽ നമുക്ക് കടലിൻ്റെ അതായത് കടലുണ്ട് പിന്നന്ന് വച്ചിട്ടുണ്ടെങ്കിലിപ്പം ക്ഷേത്രങ്ങൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പഴശ്ശിരാജേൻ്റെ പുരാവസ്തു മ്യൂസിയമുണ്ട് അങ്ങനെയുള്ള മ്യൂസിയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് അതിലൊക്കേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏകദേശം പ്രവേശനമുണ്ട് പിന്നെ പ്രവേശനത്തിന് നമുക്കിത്ര പൈസയൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലങ്ങൾ എന്ന് പറയുവാണെൽ തളിക്കുന്ന് മഹാ ശിവ ക്ഷേത്രം ലോകനാർക്കാവ് ക്ഷേത്രം അതൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ അമ്പലം കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് മെയ്നായിട്ട് നമ്മള് ഹിന്ദുക്കള് കാര്യങ്ങള് ആ ഹിന്ദുക്കള് കുളിച്ച് വൃത്തിയായിട്ടൊക്കയാണ് പോവുക അതിപ്പോൾ എല്ലാവർക്കുമൊന്നും പ്രവേശനവില്ല പക്ഷെ മ്യൂസിയത്തിൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കില് അങ്ങനെ നമുക്ക് അതായത് എല്ലാവർക്കും പ്രവേശനം കാര്യങ്ങളൊക്കെയുണ്ട് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് ഒഴിവ് സമയങ്ങളിലൊക്കെ ആഴ് ആള് ആൾക്കാരൊക്കെ കൂടുതലും പിന്നെ ചിലവഴിക്കുന്നത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മെയ്നായിട്ടും ബീച്ചിലും കാര്യങ്ങളിലൊക്കെയായിരിക്കും അതായത് ബീച്ചില് കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിരിക്കും കൂടുതലെല്ലാവർക്കും ഇഷ്ട്ടം അതായത് പിന്നെ അങ്ങനെ ഒഴിവ് സമയമൊക്കെ കൂടുതലും എല്ലാവരും ചിലവഴിക്കുന്നത് ബീച്ചിലും കാര്യങ്ങളിലൊക്കെ അല്ലാണ്ടിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നവരും ഉണ്ട്